എന്റെ രണ്ടാമത്തെ പ്രോഡക്ട്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ്ഫോണാണ് ഹെഡ്ഫോണിനെ കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് മൂന്ന് നാ മൂന്ന് രീതിയിലുള്ള ഹെഡ്ഫോണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങി ആദ്യം നമുക്ക് വയെർഡ് ആയിട്ടുള്ള ഹെഡ് ഹെഡ്ഫോണാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം മൊബൈൽ എന്തേലും കയ്യിലുണ്ടേൽ മൊബൈല് കുത്തിട്ട് നമുക്ക് ചെവിലേക്ക് വെക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെന്നു പറഞ്ഞാൽ ബ്ലൂ ടൂത്തിലുള്ള അതായത് നെക്ക് ബാന്റ് അതായത് നമ്മൾ കഴുത്തിലിങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ടൂത്തുമായിട്ട് കണക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തേം ഇറങ്ങാൻ തുടങ്ങി പിന്നെ വേറെ തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ജെ ബി എൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹെഡ് ഹെഡ്ഫോണ് അതായത് തലേന്റെ മേളിൽ വെച്ചിട്ട് വലിയ വട്ടത്തിലുള്ള ഒരു സംഭവമാണ് പിന്നെ ഇറങ്ങാൻ തുടങ്ങിത് അതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെയുള്ള നോയിസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്തേക്ക് കേൾക്കും അപ്പോൾ അത് ഇപ്പങ്ങനെ ആരും വാങ്ങാറില്ല ഇപ്പോൾ പുതുതായിട്ട് കൂടുതലായിട്ടും വാങ്ങുന്നത് ഇൻ ഇയർ അതായത് ഉള്ളിലേക്ക് വെക്കുന്ന ചെറിയ ഇയർ ബഡ്ഡുകളുണ്ട് ചെറുതായിട്ട് ചെവിന്റവിടെ മാത്രം നിൽക്കുന്ന ചെറിയ ഇയർ ബഡു കാര്യങ്ങളുണ്ട് അതാണ് എല്ലാവരും വാങ്ങുന്നത് പിന്നെ ഇതിന്റെ നെഗറ്റിവെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെവിയിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പുറമെയുള്ള ഹോണടി കാര്യങ്ങളൊന്നും കേൾക്കില്ല പിന്നെ ചെവി വല്ലാണ്ട് വേദന എടുക്കാനുള്ള സാഹചര്യം കൂടെ ചിലപ്പോൾ ചെവി കേൾക്കാത്ത രീതിയിലൊക്കെ ആയിട്ട് വരും നമ്മുടെ ചെവിലേക്ക് തൊളഞ്ഞു കയറുന്ന സൗണ്ടുകൾ കാര്യങ്ങളൊക്കെയായിരിക്കും ഇതിനകത്ത് വരുന്നത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നെഗറ്റിവെന്ന് പറഞ്ഞാൽ